അതെ പറഞ്ഞോളൂ ആ ആ എത്ര ആൾക്കാരുണ്ട് നാല് പേരാണോ ഓക്കെ പറഞ്ഞോളൂ അതെ വണ്ടി ഒരു ടവേര ഉണ്ട് നാല് ആൾക്കാർക്ക് നല്ല സുഖം ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയൊക്കെ ഉണ്ട് അതെ ഫുഡ്ഡ് ഒക്കെ ഞങ്ങൾ തന്നെ ആണ് അതൊക്കെ നിങ്ങളുടെ ആ റേറ്റിൽ ഒക്കെ അത് അതൊക്കെ പെടും കാരണം റേറ്റ് വരുന്നത് ടവേരക്ക് വരുന്നത് എവിടെ ആണ് കേരളത്തിൽ മൊത്തം ആയിട്ടാണോ

ഓക്കെ ആ ആ ആ രണ്ട് മൂന്ന് ദി ഒരു ആഴ്ചത്തേക്ക് ട്രിപ്പ് ആണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കുന്നത് ട്വൻ്റി തൗസൻഡ് ആണ് ഫുഡ്ഡും അതെ ആ വണ്ടി ചാർജൊക്കെ അതെ ഓക്കെ ആ ആ ആ ആണ് ആണ് അതെ അതെ വേണം ആ നിങ്ങൾ നിങ്ങളുടെ ആധാർ ഓക്കെ റൂം ഫെസിലിറ്റീസ് അത് അവിടെ പോയിട്ട് ഞങ്ങളുടെ ഒരു ഇതിൽ കിട്ടും അത് റൂം ഫെസിലിറ്റീസ് നിങ്ങളുടെ കെയർ ഓഫിൽ ഡിസ്കൗണ്ട് അത് ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് നോക്കാം ശ്രമിക്കാം ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ നിങ്ങൾ കൺഫേമ് പറയൂ ഡേറ്റ് ഒക്കെ കൺഫേം ചെയ്തിട്ട് പറയൂ ആ ഓക്കെ ശരി ആ ഓക്കെ ഡിസ്കൗണ്ട് ചെയ്യാം ഓക്കെ ശരി എന്നാൽ നിങ്ങൾ വിളിക്കൂ ഡേറ്റ് കൺഫേം ചെയ്തിട്ട് വിളിക്കൂ ഓക്കെ ഓക്കെ ശരി